ഞാൻ യോഗ ക്ലാസുകളിൽ പോയിട്ടുണ്ട് പിന്നീട് ഒരാഴ്ചയേ പോയിട്ടുള്ളൂ പിന്നെയത് നിർത്തി എന്ത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ യോഗ ക്ലാസിന് പോയപ്പോൾ അത്യാവശ്യം നമുക്ക് അതിനെപ്പറ്റി ഒരറിവു കിട്ടിയല്ലോ അതു അതുകൊണ്ടുതന്നെ ടി വിയിലും അതുപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ യോഗയിനെക്കുറിച്ചുള്ള ക്ലാസുകൾ അതൊക്കെ കണ്ടപ്പോൾ അതിൽ നോക്കി പിന്നെ വീട്ടിൽനിന്ന് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീട്ടിൽ നിന്നും അതുപോലെ പോയിട്ടും ക്ലാസിൽ പോയിട്ടും പരിശീലിക്കുമ്പോഴുള്ള മാറ്റം എന്നു വച്ചാൽ നമുക്കിപ്പം പോയിട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു നേരമായിരിക്കും ക്ലാസ് ഉണ്ടാവുക അപ്പോൾ അതിന് പോകുവാൻ പറ്റിയിട്ടില്ല അന്ന് പോകേണ്ടയെന്ന് വിചാരിക്കും പക്ഷേ വീട്ടിൽ നിന്നാവുമ്പോൾ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു സമയത്ത് യോഗ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾക്ക് അതിൻ്റേതായ രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തിയിട്ട് ചെയ്യാം പുറത്തു പോകേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും ഒരു തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽത്തന്നെ ചെയ്യാമല്ലോ അതൊരു അതിനൊരു അഡ്വാൻ്റേജ് ഇണ്ട് അതുപോലെത്തന്നെ നമുക്ക് യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആസനങ്ങളും അതുപോലെ യോഗേനെപ്പറ്റി എന്താണോ അതൊക്കെ അതൊക്കെ പഠിച്ച് നമ്മൾക്ക് വീട്ടീൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയുംകൂടി നമുക്ക് ഉൾപ്പെടുത്താമല്ലോ ഇപ്പോൾ ക്ലാസ്സിൽപ്പോകാൻ മടിയുള്ളവർക്ക് വീട്ടീൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഒരിഷ്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ വീട്ടിൽ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം